ഹലോ ഗുഡ് മോർണിംഗ് അതെ അതെ പറഞ്ഞോളു ആഹാഹാ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ ഉണ്ടായിരുന്നു എൻ്റെ മോനെന്നു വെച്ചാൽ അലമ്പില്ല അവൻ കുഴപ്പം ഒന്നും ഇല്ല പക്ഷേ പഠിത്തതിൽ ഇത്തിരി പുറകോട്ടാണെന്നേയുള്ളൂ അവന് അക്കാഡമിക്സില് ഭയങ്കര പുറകോട്ടാണ് പക്ഷെ ക്യാരാക്ടർ ഒന്നും വലിയ രീതിക്കൊന്നുമില്ല ആ ആ ആ അവനിപ്പോൾ ഇപ്പോൾ പ്ലസ്ടു വരെ ഒക്കെ എത്തിയില്ലേ അപ്പം അതിന്റേതായിട്ടുള്ള മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവും പിന്നേ ഞാൻ വീട്ടിൽ കൂട്ട് കെട്ട് വലിയ കുഴപ്പമില്ല അപ്പം അതിൻ്റെ ഒക്കെ ആയിരിക്കും ക്യാരക്റ്ററിന് ചേഞ്ച് ഉണ്ടായത് അപ്പോൾ പിന്നെ ക്യാരാക്ടർ വിഷയമില്ല പക്ഷെ അക്കാഡമിക്സാണല്ലോ നമുക്ക് ഇവിടെ മെയിൻ അക്കാഡമിക്സിൽ പുറകോട്ട് പോയാൽ പിന്നെ അടുത്ത അട്ത്ത ഡിഗ്രിക്കാണേലും അതിനിടയിൽ കോളേജിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് മാർക്കില്ലെങ്കിൽ കാര്യമില്ലല്ലോ സ്വഭാവം നാന്നായ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാർക്കല്ലേ നമുക്ക് വേണ്ടത്

ആഹാ അവൻ വീട്ടിൽ എങ്ങനെയുണ്ട് വീട്ടിൽ എങ്ങനെയുണ്ട് അവൻ

മ്മ് മ് ഫോണിൽ ആണല്ലെ മ്മ് മ്മ് മ്മ് അവൻ്റെ ഫോണിൽ പണിയെല്ലാം നമുക്ക് ഇവിടെ സ്കൂളിൽ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ക്ലാസിൽ ഇരുന്ന് ഉറക്കമാണ് പിന്നെന്താ സംസാരമാണ് അത് വിഷയമില്ല സംസാരം പക്ഷെ അത്രയ്ക്ക് ബാക്കി പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഡീസെൻറ്റാണ് പിന്നെ ക്ലാസിൽ കിടന്ന് ഉറക്കം അത് പിന്നെ നമ്മൾ പഠിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോൾ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങുന്നത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ആ പിന്നെന്താ പിന്നെ ആൾ ഇത്തിരി ഇൻട്രോവെർട്ട് ആണ് കേട്ടോ അതായത് അവനൊരു സർക്കിൾ ഒക്കെ ഉണ്ട് അതിനുള്ളിൽ നിന്ന് തന്നെ സംസാരിക്കുകയും അവരോട് മാത്രമേ മിണ്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളു അപ്പോൾ അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല കാരണം അവൻ സ്കൂളിൽ വരുന്നു അവരോട് സംസാരിക്കുന്നു വീട്ടിൽ പോകുന്നു ഫോണിൽ പണിയുന്നു പിന്നേയും തിരിച്ച് വരുന്നു അവൻ പിന്നെ സ്പോർട്സിനാണേലും ആട്ട്സിനാണേലും ഒരു കോൺട്രിബ്യുഷനും ഇന്നേവരെ നമുക്ക് സ്കൂളിന് കിട്ടിയിട്ടിൽ അപ്പോൾ എന്നാ അവനെങ്ങനെയാണ് സ്പോർട്സിനൊക്കെ താൽപ്പര്യമുള്ള കുട്ടിയാണോ ആ പിന്നെ എന്നാ പറ്റി ആ ആ ആ അത് മാത്രം അല്ലെ അപ്പം നമുക്ക് മ്മ് മ്മ് മ്മ് മ്മ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ഫോണുപയോഗം മാക്സിമം നമുക്ക് കുറയ്ക്കാൻ നോക്കണം എന്നാലെ അവൻ അക്കാദമിക്കിലിയും പിന്നെന്നാ സ്പോർട്സാണേലും അവന് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അവൻ്റെയൊരു വേർൽഡ് എന്ന് പറയുമ്പോൾ ഫോണാണ് മനസ്സിലായോ അപ്പോൾ ഞങ്ങൾ ആ നമുക്ക് ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് അവനെ ഒന്ന് ഉപദേശിച്ച് നോക്കാം എന്നിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് താങ്കളിപ്പോൾ പറഞ്ഞത് പോലെ തന്നെ ഫോൺ മേടിച്ച് എൻ്റെ കയ്യിൽ തന്നോ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് തരാം ഇനി ഇപ്പോൾ ആ ഞാൻ രാവിലെ ഒരു ഒൻപത് തൊട്ട് നാലുവരെ സ്കൂളിൽ ഉണ്ട് എനിക്കാകെ രണ്ട് അവറെ അവരുടെ ക്ലാസ്സിലുള്ളു അത്കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഫ്രീയാണ് സീനില്ല കുഴപ്പമൊന്നും ഇല്ല വന്നാൽ മതി നമുക്ക് കാണാം ഓക്കെ കാണാൻ വന്നോ കുഴപ്പമില്ല കുഴപ്പമില്ല

ശരി ഓക്കെ